ഇപ്പോൾ കാർഷികമേഘലക്ക് കൈത്താങ്ങായിട്ട് കൃഷിവകുപ്പ് പല പദ്ധതികളക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ അത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അതെത്തീട്ടുണ്ടോന്നുള്ള കാര്യം സംശയമാണ് അപ്പം അതിനായിട്ട് അവർക്ക് കുറച്ച് ബോധവൽക്കരണ ക്യാമ്പ്കളക്കെ നടത്തുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ കൊയ്ത്ത് മെഷ്യൻ അങ്ങനക്കെയുള്ള മെഷി മെഷിനുകളക്കെ പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനം കൊടുക്കുക ഉൽപ്പാദനോപാധികളക്കെ സൗജന്യമായിയിട്ട് കൊടുക്കുക പിന്നെ തേനീച്ച വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ ജൈവ പച്ചക്കറി ആട് വളർത്തൽ അതിലൊക്കെ ഒരു പരീശീലനം കൊടുക്കാണെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും പിന്നെ സുഭിക്ഷകേരള പദ്ധതിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മനോരമ ആഴ്ച്ച പ്പതിപ്പ് വായനക്കാർക്ക് വേണ്ടീട്ട് വീട്ടമ്മമാർ വഴി പച്ചക്കറി വിത്തുകളൊക്കെ നൽകിഴിരുന്നു അപ്പം അവരത് വീട്ടുവളപ്പിലക്കെ നട്ടുപിടിപ്പിച്ച് സ്വയം വരുമാനം ഉണ്ടാക്കാനതിലൊരു വഴിയൊക്ക കാണിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീട്ടിലേക്ക് ഗുണമേന്മയുള്ള ഭഷ്യവിഭവങ്ങൾ കിട്ടേം ചെയ്യും